പ്രത്യേക ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് അപര്യാപ്ത പിന്തുണയുമായി സർക്കാർ ഇപ്പോൾ നമ്മളെ കൂടെ തന്നെയുണ്ട് ഈ വളർന്ന് വരുന്ന സമൂഹത്തിൽ സർക്കാർ വളരെയധികം പ്രോജക്റ്റുകളും വിദ്യാർഥികളെ എല്ലാവരെയും ഒന്നടങ്കം ചേർത്ത് നിർത്തുവാനുള്ള പരിശ്രമങ്ങളും നടത്താറുണ്ട് ഇതുവഴി വിഭിന്ന വിഭിന്നശേഷിയുള്ള കുട്ടികൾക്കും മറ്റു കുട്ടികൾക്കും ഒരു വേർതിരിവുമില്ലാണ്ട് വിദ്യാഭ്യാസമുറപ്പാക്കുകയാണ് സർക്കാർ വിഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് പ്രത്യേക പരിഗണന നൽകുകയും ആണ് പുതിയ വിദ്യാഭ്യാസ നയം നിർദ്ദേശിക്കുന്നത് ഇവർക്കായി പരിശീലനം നേടിയ അദ്ധ്യാപകരെയും നിയമിക്കുന്നതും ആണ് നയത്തിലെ പ്രധാന നിർദ്ദേശം പാഠ്യപദ്ധതികളിൽ മാറ്റം വരുത്തി ഇവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നതാണ് ഉദ്ദേശം ഇവരുടെ ആവശ്യങ്ങൾക്ക് ഇവർ മറ്റുള്ളവരോട് പെരുമാറുവാനും എങ്ങനെ നല്ല രീതിയ്ക്ക് പഠിക്കണമെന്നും ആവശ്യമുള്ള കരിക്കുലം മാത്രമാണ് അവർക്ക് ചേർന്ന രീതിയിലാണ് പാഠ്യപദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് ഇൻക്ലൂസീവ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ച് എല്ലാവരെയും ഒരേ സ്കൂളിൽ പഠിപ്പിക്കാനാണ് സർക്കാരിൻ്റെ പുതിയ ശ്രമം സ്കൂളിൽ ശാരീരിക ഭൗതിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് സൗകര്യപ്രദമാക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത് ഇതുവഴി പഠിത്തത്തിൽ പുറകിൽ നിൽക്കുന്ന കുട്ടികൾക്ക് പ്രത്യേകതരം ഒരു ടീച്ചറെ അദ്ധ്യാപകരെയും വെച്ചുകൊണ്ട് കൂടുതൽ നന്നായി അവരെ പുറകിൽ നിന്നും ഉയർത്തിക്കൊണ്ട് വരാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ട് കൂടാതെ അവർക്ക് വേണ്ട ആനുകൂല്യങ്ങളും പിന്തുണയും ഉപകരണങ്ങളും വിദ്യാഭ്യാസ ഉപകരണങ്ങളും എല്ലാം ഭിന്നശേഷി കുട്ടികൾക്ക് സർക്കാർ വിതരണം ചെയ്യുന്നുണ്ട് കൂടുതൽ സ്പെഷ്യൽ സ്കൂളുകൾ സ്ഥാപിക്കാനുള്ള പദ്ധതികൾ സർക്കാർ ഉണ്ടാക്കുന്നുണ്ട് ഇതുവഴി കൂടുതൽ എല്ലാ കുട്ടികളെയും വിദ്യാഭ്യാസം ഉറപ്പ് വരുത്തുവാനാകും രാഷ്ട്രീയ വ്യാപകമായ ഡാറ്റ ശേഖരിച്ച് ഇത്തരത്തിലുള്ള കുട്ടികളെ കൃത്യമായി എണ്ണം മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ് എന്ന് ഞാൻ കരുതുന്നുണ്ട് അതുവഴി എൽ ഏതൊക്കെ കുട്ടികൾക്കാണ് വിദ്യാഭ്യാസം ലഭിക്കാത്തത് എന്ന് മനസ്സിലാക്കുവാനും അവർക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള നടപടികൾ ചെയ്യുവാനും വളരെയധികം സഹായകരമാണ് അവരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാൻ കലാകായിക സംഗീതം മേഖലകൾ അവസരങ്ങൾ നൽകണം ഈ ഇന്നത്തെ സമൂഹത്തിൽ ധാരാളം കലാ കായിക സാങ്കേതിക മേഖലകളിൽ അവസരങ്ങൾ സ്പെഷ്യൽ കുട്ടികൾക്കും നൽകാനായി പല പല ഓർഗനൈസേഷൻസും ഗെവൺമെൻറ്റും കൂടി പലതരം പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടാൽ ഏർപ്പെടുത്താറുണ്ട് പേരൻസും രക്ഷകർത്താക്കളും സ്കൂൾ അധികൃതരും അദ്ധ്യാപകരും എല്ലാവരും ഒരു നല്ല ഒരു കൈത്താങ് നൽകുകയാണെങ്കിൽ ആ കുട്ടികളും മറ്റുള്ളവരെ പോലെ തന്നെ ചിറക് ഉയർത്തി പറക്കുവാനും സ്വപ്നം കാണുവാനും എല്ലാം നല്ല രീതിയ്ക്ക് നേടി എടുക്കുവാനും അവർക്കാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് വിദ്യാഭ്യാസം എല്ലാ കുട്ടികൾക്കും ഉറപ്പ് വരുത്തേണ്ട അവരുടെ അവകാശം ആണ് അതിനായി നമ്മൾ എല്ലാവരും ഒരുമിച്ച് തന്നെ കൈ ചേർന്ന് കൈ കൊടുത്താൽ സപ്പോട്ട് അവർക്ക് വേണ്ട സപ്പോട്ടും എല്ലാം നൽകിയാൽ അവർ എന്തിനും നല്ലതായി അവർ വളരും എല്ലാം പിടിച്ചെടുക്കാനും അവർക്ക് ആകും